ആലപ്പുഴ ജില്ലയുടെ വികസനം പരിസ്ഥിതിയും ടൂറിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏറ്റവും കൂടുതല് സാധ്യത പാരിസ്ഥിതിക നേട്ടങ്ങളാണ് നമ്മള് ഉപയോഗിക്കേണ്ടത് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഉൾനാടൻ ഗതാഗതം ജല ഗതാഗതത്തിന് പറ്റിയ പ്രദേശങ്ങളാണ് ടൂറിസവുമായി ബന്ധപ്പെടുത്തി ആലപ്പുഴ ജില്ലയെ ഡെവലപ്പിയ്താൽ പുറത്തുനിന്നും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നതിനും ഹൗസ് ബോട്ട് ബോട്ടിംങ് വള്ളംകളി മുതലായവ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നില്ക്കുന്നതുകൊണ്ടും അതോടൊപ്പം തന്നെ കൃഷിയിൽ പ്രധാനമായും നെല്ല് തെങ്ങ് ഇവയു വാഴ ഇവയുടെ കൃഷിയിൽ ഏറെ പ്രയോജനമാകുന്ന രീതിയിൽ ടൂറിസം മേഖലയെ ഉപയോഗപ്പെടുത്തിയാൽ ആലപ്പുഴ ജില്ലയുടെ വികസനത്തിന് പ്രധാന

നേടിയെടുക്കുവാൻ സാധിക്കും അതോടൊപ്പം അടിസ്ഥാന മേഖല ടൂറിസവുമായി ബന്ധപ്പെടുത്തി ഇല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെടുത്തി വികസനം സാധ്യമാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന മേഖലയിൽ വികസനങ്ങൾ ഉണ്ടാകേണ്ടതാണ് ഏറ്റവും പ്രധാന കാര്യം പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും ഗതാഗത മാ മാർഗങ്ങൾ മെച്ചപ്പെടുത്തുകയും അതോടൊപ്പം അടിസ്ഥാന സൗകര്യ വികസനം പുറത്തുനിന്നു വരുന്നവർക്ക് താമസം ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ നമ്മുടെ ടൂറിസം സാദ്ധ്യതകൾ കുറഞ്ഞ രീതിയിൽ ആഘോഷകമായി അവർക്ക് യൂസർ ഫ്രണ്ട്ലിയായി ഇവ ഉപയോഗപ്പെടുത്തുന്നതിനും ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം അതോടൊപ്പം തന്നെ വള്ളംകളി ടൂറിസത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് വള്ളംകളിയെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പുറത്തു നിന്നുള്ളവർക്ക് ആകർഷകമായ രീതിയിൽ നമ്മുടെ തനത് കലകളെ വള്ളംകളിയോടൊപ്പം ആലപ്പുഴ ജില്ലയിലെ തനതു കലകളെ പ്രോത്സാഹിപ്പിച്ച് അത് കൂടുതൽ പ്രയോജനപ്രദമാകത്തക്ക രീതിയിൽ ഉപയോഗപ്പെടുത്തുക അതോടൊപ്പം കാർഷിക മേഖലയ്ക്കു കൂടുതൽ പ്രാധാന്യം നൽകി കാർഷിക മേഖല വേണ്ട സഹായങ്ങൾ കൃഷി ഇന്ന് അന്യം നിന്നു പോകുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു പുതു തലമുറ കൃഷിയുമായി ആഭിമുഖ്യം കാണിക്കുന്നില്ല ആയതിനാൽ കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ അതുപോലെ മൃഗസംരക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം നൽകി ആലപ്പുഴ ജില്ലയുടെ വികസനത്തിനുവേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവ സംരക്ഷിക്കുക